ഷെയർ മാർക്കറ്റ് എന്നു പറയുന്നത് നിലവിലെ വിപണിയെ ഡിപ്പെൻ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഓരോ ടൈമിംഗിന് അനുസരിച്ച് ഇതിൻ്റെ വേരിയേഷൻസ് വരുന്നുണ്ടാകും ചിലപ്പോൾ നല്ല രീതിയിൽ ഷെയർ മാർക്കറ്റിൻ്റെ വാല്യു കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇത് ഡിപ്പെൻ്റബിളാണ് ഓരോ കമ്പനിയനുസരിച്ച് അതിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇതും കാര്യങ്ങളൊക്കെ വച്ചിട്ടാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഇതു വരുന്നത് ഓരോ ടൈമിന് അനുസരിച്ച് ചിലപ്പോൾ അപ്പ് ആയിരിക്കും ചിലപ്പോൾ ഡൗൺ ആയിരിക്കും അതൊക്കെ ഡിപ്പെൻ്റബിളാണ് ചില ടൈമിൽ നല്ല രീതിയിൽ ഡൗൺ ആവുകയും പിന്നെ കുറച്ച് സമയത്തിനു ശേഷം അത് വളരെ പെട്ടന്ന് ഹൈ ആവുകയും ചെയ്യും പിന്നെ ഇതിനു മെയിനായിട്ട് വരുന്നത് എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ ചില സമയം നോക്കിയും കണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറെ ലോസ്സ് ആവാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങ് വച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതായി വരുന്നൊരു ഒരു ടൈമാണ് അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിജിറ്റലായതുകൊണ്ട് ഇപ്പം എല്ലാം ഇൻവെസ്റ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഡിജിറ്റലായിട്ടാണ് വരുന്നത് അപ്പോൾത്തന്നെ എല്ലാ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നോക്കിയും കണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നതും എമൗണ്ട്സ് കാര്യങ്ങളൊക്ക വരികയും ചെയ്യുന്നത് ചില സമയത്ത് ഷെയർ മാർക്കറ്റിൻ്റെ വാല്യൂസ് കൂടുകയും ചില സമയത്ത് അതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നുണ്ട് കുറയുന്ന സമയത്ത് ചിലപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ട് വളരെയധികം ലെസ്സ് ആവുകയും ചിലപ്പോൾ ഭയങ്കരമായും നമുക്ക് നഷ്ടങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടാകും അതുപോലെത്തന്നെ ഷെയർ മാർക്കറ്റിൻ്റെ വാല്യൂസ് കൂടുന്ന സമയത്ത് നല്ല രീതിയിൽ കൂടുകയും ചില നല്ല രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ടാവും